പല സിനിമാമേഖലകളും അത് ബോളിവുഡ് ആകട്ടെ ടോളിവുഡ് ആകട്ടെ ഇന്ത്യയിൽ എല്ലാ ഇടങ്ങളിലും എല്ലാ ഇടങ്ങളിലുമുള്ള ഏത് തലത്തിലുള്ള ഏത് മേഖലകളിലുള്ള സിനിമകളാകട്ടെ അത് ഒരുപാട് നേർ ഒരുപാട് ഓരോ മനുഷ്യരെയും ഒരുപോലെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ച് വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ ഓരോ സിനിമ ഇറങ്ങുമ്പോൾ പല മനുഷ്യരു പല മനുഷ്യരുടെയും ചിന്തകൾ അതിനോടനുസരിച്ച് വ്യത്യാസപ്പെടും ഓരോ ഫാഷൻ ഇറങ്ങുന്നത് ഇറക്കുന്നതും അവരതിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതും അവരെ ചിന്തിപ്പിക്കുന്നതും ഓരോ പടങ്ങളിലൂടെ തന്നെയാണ് വ്യത്യസ്തമായ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിൽ അതിലെ നായികാ നടന്മാരും നടികളും ധരിക്കുന്ന വേഷങ്ങൾ എന്താണോ അതിനനുസരിച്ച് മറ്റ് വ്യക്തികളുടെയും നമ്മൾ കാണുന്ന ഓഡിയൻസുകളുടെയും വസ്ത്ര വേ വേഷവിധാനങ്ങൾ മാറും അവർ അതിനനുസരിച്ച് വസ്ത്രം ധരിക്കാനും പുതിയത് തുന്നികൂട്ടാനും ആ ആ ഒരു ഫാഷനനുസരിച്ച് അവർ നടക്കാനും പിന്നീട് ആഗ്രഹിക്കും സിനിമയിലെ വസ്ത്രത്തിന് സമാനമായ വസ്ത്രങ്ങൾ സൃഷ്ടിക്കാൻ ഞാനും സൃഷ് ശ്രമിച്ചിട്ടുണ്ട് ഞാനെന്നല്ല ഒരുപാട് പല വ്യക്തികളും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ടാകും കാരണം ഓരോ സിനിമയിൽ നിന്ന് തന്നെ ആണ് ഓരോ ഫാഷൻ്റെ മോഡലുകൾ ഓരോ തുന്ന ഓരോ തുന്നുന്ന ഓരോ വ്യക്തികളിലേക്കും അതിൻ്റെ ഒരു അംശം തലയിലോട്ട് വന്നുചേരുന്നത് അപ്പോൾ അതിനനുസരിച്ച് അത് അവർ വരച്ച് അവർ അതിനെ അതിൽ പ്രവർത്തിച്ച് അതൊരു വസ്ത്രമാക്കി മാറ്റുന്നു അത് നമ്മൾ പിന്നീട് അണിയും അത് കണ്ട് മറ്റു മനുഷ്യരും അതിനനുസരിച്ച് തന്നെ ആ ഒരു ഫാഷനിലോട്ട് മാറാനും ശ്രമിക്കുന്നു അങ്ങനെ ഇ ഇ ഇന്ത്യ ഇന്ത്യയിലുള്ള ഇന്ത്യയിലില്ല എല്ലാ ഭാഷയിലും എല്ലാ സംസ്ഥാനത്തും ഏതൊരു രാജ്യത്തും എല്ലാ രാജ്യങ്ങളിലും പല നിന്നുമുള്ള പല വേഷവിധാനങ്ങളും പല മനുഷ്യരെയും സ്വാധീനിക്കുന്നു അതിന് ഒരു വലിയ കാരണം തന്നെയാണ് ഈ സിനിമ എന്നുള്ളത്